ജപ്പാൻ്റെ അതിരുകൾ കഴിഞ്ഞു ഒർഗാമി ഒരുപാട് സ്ഥലത്തേക്ക് വ്യാപിച്ചു ആദ്യം നമ്മൾ ഈ ഒർഗാമി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താണ് സംഭവം ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു പിന്നീടാണ് മനസിലായത് നമ്മുടെ പേപ്പറുകൾ കൊണ്ടുണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കൾ അതാണ് ഒർഗാമിന്ന് പറയുന്നത് അത് നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് കേരളത്തിലും അതിന് ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മുടെ കേരളത്തിലുണ്ടായി ഓരോരിക്ക നല്ല ട്രെൻറ്റിങ്ങായിരുന്നു കുട്ടികളെല്ലാം കമ്മലുണ്ടാക്കുന്നു മാലയുണ്ടാക്കുന്നു അതിൻ്റെ കമ്മലുകളൊക്കെ ഒരുപാട് വിപണിയിൽ വിറ്റു പോവുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ സാഹചര്യവുമായിട്ട് ഇണങ്ങുന്ന രീതിയിൽ അതൊരു പേപ്പർ ആയത് കൊണ്ട് ഒരു മാലിന്യ വസ്തുവായിട്ട് അത് മാറുന്നില്ലായിരുന്നു പ്ലാസ്റ്റിക് പോലല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കുറെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം വലിച്ചെറിഞ്ഞു അവിടെ ഇവിടെ എല്ലാം കൊണ്ടിടുന്നു അതുപോലെ പേപ്പർ ആയതുകൊണ്ട് ഈ ഇത് ഒ നമുക്കൊരിക്കലും നഷ്ട്ടപ്പെട്ടുപോകുന്നില്ല നമ്മുടെ പ്രകൃതിക്ക് അതിനെ ദോഷമാകുന്നില്ല അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാലും നമുക്കതൊരു ദോഷമുള്ള സാധനമായിട്ട് മാറുന്നില്ലായിരുന്നു ഒരു ട്രെൻറ്റിങ് സമയത്ത് ഇതിൻ്റെ ഒരുപാട് കച്ചവടങ്ങൾ ക കടകളിലും കച്ചവട സ്ഥലങ്ങളിലൊക്കെ ഇതിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുപാട് കമ്മലുകളും മാലയും വള അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ വീട്ടിൽ അലങ്കാര വസ്തുക്കളെല്ലാം ഉണ്ടാക്കി അവർ വീടുകളിൽ വെക്കേം കടകളിൽ കൊണ്ടുപോയി വിൽക്കുകയും അതുപോലെ തന്നെ സ്കൂള്കളിലും സ്ഥാപങ്ങളിലൊക്കെ ഇതിനു വലിയൊരു പ്രാധാന്യം വളർന്നു വന്നിരുന്നു ഓർഗാമിയുടെ കമ്മൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും അതിന് മേടിക്കാൻ വേണ്ടി റെഡിയായിരുന്നു പല രീതിയിൽ നമ്മളതിശയം ഉള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ പല സാധങ്ങളും നമുക്ക് കിട്ടിയിരുന്നു കമ്മലുകളൊക്കെ പല ഡിസൈനിലും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയായിട്ടാണ് ഇന്ന് കമ്മലുകളൊക്കെ വിപണിയിൽ വന്നത് നമ്മളതിശയിച്ചു പോകുകയായിരുന്നു ഇതൊരു പേപ്പറ് കൊണ്ടുണ്ടാക്കുന്ന സാധനമാണോ എന്നുപോലും നമ്മളതിശയിച്ചു പോയിട്ടുണ്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിന്ന് നമുക്കൊത്തിരി കിട്ടിയിട്ടുണ്ട് ഒത്തിരി കാണാനും സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഈ ഓർഗാമിന്ന് പറയുന്നത് നമുക്കത് വലിച്ചെറിഞ്ഞു കൈയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ വലിച്ചെറിഞ്ഞു കളയാൻ കളഞ്ഞാലും പ്രകൃതിക്ക് ദോഷമോ ആകുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നഷ്ട്ടം ഇത് ഈ ഒരു കമ്മൽ ഇപ്പോൾ നമ്മളുപയോഗിച്ചു അത് അവസാനം അത് കുറെ നാളായപ്പോഴേക്കും അത് പോയെങ്കിൽ പോലും നമുക്കത് അത് നമ്മുടെ കൈയ്യിൽ നിന്ന് നഷ്ട്ടപ്പെട്ടുപോയാലും അത് പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിലുളള ഒരു സംഭവമായിരുന്നു ഈ ഒറിഗാമിന്ന് പറയുന്നത് അപ്പം അത് എല്ലാവർക്കും തന്നെ അതിനോട് ഒത്തരി ഇഷ്ട്ടവായിരുന്നു ഒരിടക്ക് കുട്ടികളെല്ലാം ഈ ഒരു കമ്മലും മാലയും വളയുമൊക്കെ അണിഞ്ഞു തന്നെയാണ് നടന്നത് അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഈ പേപ്പറ് കൊണ്ട് ചെയ്ത് ഉണ്ടാക്കിവെക്കുമായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ്റെ അതിരുകൾ കഴിഞ്ഞ് കടന്ന് അത് എല്ലാ രാജ്യങ്ങളിലേക്കും ഈ സംഭവം വളർന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു ഒരുപാട് അവസരങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ അലങ്കാര വസ്തുക്കളിൽ ഈ സാധനം കൊണ്ടുവരുവാൻ സാധിക്കയും ചെയ്തിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉളള സാധനങ്ങളാക്കി എടുക്കുകയും അവരത് ഉപയോഗിക്കയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ പേപ്പറുകൊണ്ടുള്ള ഈ ഒർഗാമിന്ന് പറയുന്ന സാധനം നമ്മുടെ സാഹചര്യവും ആയിട്ട് ഒരുപാട് ഇണങ്ങി പോകുന്ന ഒന്ന് തന്നെയായിരുന്നു